ഇപ്പം ജെപ്പാൻ്റെ അതിരുകൾ കടന്ന് ഒറിഗാമി എത്രയോ വളർന്നു കാരണം നമ്മൾ മറ്റ് ഇപ്പം നമ്മുടെ കാര്യങ്ങൾ ഒക്കെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്ന രീതീലാണ് കാരണം നമ്മൾ എവിടേക്കും പോകണ്ട നമ്മുടെ കയ്യിൽ എല്ലാം എത്തുന്ന രീതിയിൽ ഇപ്പം നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ അതുപോലെ തന്നെ ബ്ലിങ്കിറ്റ് അതുപോലെത്തെ ഉള്ള കുറെ ആപ്ലിക്കേഷന് അതുപോലെ തന്നെ നമ്മൾക്ക് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ട്വിറ്റർ അങ്ങനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്മാർട്ട് നമ്മൾ ഒരു സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഒരുപാട് വളർന്നു എത്രയോ വളർന്നു മറ്റേ നമ്മൾ ഇപ്പം പണ്ട് ഉള്ള പോലെ അല്ല നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം എങ്കിൽ ട്രാവൽ ചെയ്യണം എങ്കിൽ നടക്കേണ്ട ആവശ്യമില്ല വണ്ടിയിൽ കയറി ഇരുന്ന് പോകാന്നുള്ളത് അങ്ങനെ എല്ലാം ഓട്ടോമാറ്റിക്ക് യുഗമായി ഇനി ഇപ്പം റോബോട്ടുകളുടെ കാലം വരാൻ പോകാണ് അതുപോലെ തന്നെ ഇപ്പം ഫൈ ജിയാണ് വൺ ജി ടൂ ജി ത്രീ ജി അതുപോലെ തന്നെ ജെനറേഷൻ ഫൈ ജീലേക്കിപ്പെത്തിനിക്കാണ് എല്ലാം ഓട്ടോമാറ്റിക്കലി സ്പീഡായി കൊണ്ടിരിക്കുകയാണ് എല്ലാ ഇതിലും നമ്മൾ നോക്കുക ആണെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യ വളരുന്നതിന് അനുസരിച്ച് മനുഷ്യൻ്റെ കാര്യങ്ങൾ എല്ലാം എളുപ്പമായി കൊണ്ടിരിക്കുകയാണ് ഡെവലപ്പായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ സ്മാർട്ടായി കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പണ്ടുള്ള പോലെ അല്ല നമ്മുടെ ജീവിതം സാഹചര്യങ്ങളൊക്കെ മാറി മാറി നമ്മുടെ അതിരുകൾ അതിനേക്കാളും അപ്പുറം എത്തിയിരിക്കുന്നു